എനിക്ക് ഇങ്ങനെ യു കെയിലെ ഒരു ഇൻറേർൺഷിപ്പിനായിട്ടുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ വിസ പ്രോസസിങ്ങിനായിട്ട് എനിക്ക് എൻ്റെ പാസ്സ്പോർട്ടിൻറെ വേരിഫിക്കേഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അതിൻ്റെ നടപടി ക്രമങ്ങൾ എന്തൊക്കെ ആണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ അത് ഞാനിപ്പോൾ ഓൺലൈനിൽ ആയിട്ട് ചെയ്യണോ അതോ ഓഫ്ലൈൻ ആയിട്ട് ചെയ്താൽ മതിയോ എന്താണ് അതിനുള്ള നടപടി ക്രമങ്ങൾ എന്ന് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് പിന്നെ യു കെയിലാണ് കിട്ടിയിരിക്കുന്നത് ഇൻറേർൺഷിപ്പ് ഇത് ഞാൻ വളരെ അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അതിപ്പോൾ കിട്ടിയതിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് ഞാൻ അത്രയും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ടുതന്നെ പാസ്സ്പോർട്ടിൻ്റെ കാര്യത്തിലിത് തടസ്സപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പാസ്സ്പോർട്ടിൻ്റെ അതിൻ്റെ വേരിഫിക്കേഷൻ കാര്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് പാസ്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ വലിയ ജ്ഞാനമില്ല അതുകൊണ്ടു തന്നെയാണ് ബന്ധപ്പെടുന്നത് ഇത് ഈ കാരണത്താൽ പാസ്പോർട്ടിൻ്റെ കാരണത്താൽ അത് തടസ്സപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള നടപടി എനിക്ക് ചെയ്ത് തരണം എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഈ ഇൻറേൺഷിപ്പ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു കാരണം ഇത്ര നല്ലൊരു രണ്ട് വർഷത്തെ സ്റ്റേബാക്കോടുകൂടി നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അതും സ്റ്റൈപൻറോടുകൂടിയുള്ള പഠനം ഇൻറേൺഷിപ്പുമാണ് അവിടെ ലഭിക്കുന്നത് വിസ പ്രോസസ്സിങ് ആവശ്യമായിട്ട് പാസ്സ്പോർട്ടിൻ്റെ നില അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കൊന്ന് വ്യക്തമായി പറഞ്ഞുതരാൻ താങ്കൾക്ക് സാധിക്കുമോ